ഓഹ് എങ്ങനത്തെ വീടാണ് എത്ര ബി എച്ച് കെയാ ഓക്കേ ഇത് ഐ ടി പാർക്ക് എവിടെയാ വരുന്നത് സ്ഥലം

ഫാമിലി എന്നുവെച്ചാൽ എത്ര മെംബേർസ് വരും സർ അഞ്ചുപേരോ

ഐ ടി പാർക്കിന്റെയടുത്തല്ലേ എത്രയാ ബഡ്ജറ്റ് സർ ടെൻ ടു ട്വൽവ് ഒരു ഐ ടി പാർക്കിന്റെ ഒരു മൂന്നു കിലോമീറ്റർ അടുത്തൊരു അപാർട്മെന്റ് കൊടുക്കാനുണ്ട് അപാർട്മെന്റ് മതിയാവുമോ വീടു തന്നെ വേണോ അങ്ങനെ വല്ലതും ഉണ്ടോ ഓക്കേ ഓക്കേ അവിടുന്നൊരു മൂന്നു കിലോമീറ്റർ മാറിയുള്ള സ്കൈലൈൻറെ ഫ്ലാറ്റിൽ ഒരു അപാർട്മെന്റ് കൊടുക്കാനുണ്ട് അവർ പറയുന്നത് റെന്റ് പതിനഞ്ചാണ് നെഗോഷ്യബിളാണെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ അഞ്ചുപേരുള്ളതുകൊണ്ട് ആ അതു സംസാരിക്കാം പ്രശ്നമൊന്നുമില്ല മാരീഡല്ലേ ആ ഓക്കേ അത് ബാച്ചിലേഴ്സിനു കൊടുക്കരുതെന്നു പറഞ്ഞിട്ടുണ്ട് ഓണർ അപ്പോൾ പിന്നെ

കോഷൻ ഡെപോസിറ്റ് അത് ഓണറിനോട് സംസാരിച്ചിട്ട് ഞാൻ പറയാം ഓക്കേ ഓക്കേ അത് അതു കുഴപ്പമില്ല ഒരു വർഷത്തേക്കല്ലേ അതു വൺ ലാഖിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും എന്തായാലും ഓണറിനോടൊന്നു സംസാരിക്കട്ടെ പുള്ളി അമേരിക്കയിലെങ്ങാണ്ടാ ഓക്കേ സോ വേറെന്തെങ്കിലും ഉണ്ടോ ഐ മീൻ എന്നത്തേക്കാ മാറാൻ ഉദ്ദേശിക്കുന്നത് അല്ല അഗ്രീമെന്റ് ചെയ്യുന്നത് എന്നത്തേക്കാ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ അത് പ്രശ്നമില്ല ഒക്കെ എന്നു പറഞ്ഞാൽ വേണ്ട പ്രശ്നമാക്കേണ്ട